ഹലോ എൻ്റെ പേര് അൻസമ്മ ചെറിയാൻ എന്നാണ് ഞാൻ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ് ഞാൻ എന്നും ഫുഡ് ഓർഡർ ചെയ്യുന്നതായിരുന്നു ഞാനിപ്പം താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും മാറിയായിരുന്നു ഇപ്പം ഞാൻ ആണെങ്കിൽ എൻ്റെ പുതിയ അഡ്രസ്സ് പറയാം അപ്പം അതൊന്ന് നിങ്ങളുടെ പട്ടികയിലോട്ട് ഒന്ന് ആഡ് ചെയ്യാമോ എൻ്റെ പുതിയ അഡ്രസ്സ് ഒന്ന് നിങ്ങൾ ആഡ് ചെയ്തിട്ട് എൻ്റെ സാധനം അവിടെ കൊണ്ട് തരാവോ എൻ്റെ പേരും അഡ്രസ്സും ഞാനൊന്നു പറയാം എൻ്റെ പേര് അൻസമ്മ ചെറിയാൻ എൻ്റെ വീട്ടുപേര് മുട്ടത്ത് ഹൗസ് വെളിയനാട് പി ഒ ആലപ്പുഴ ആണ് നിങ്ങൾ ഈ അഡ്രസ്സിൽ കൊണ്ട് തരാവോ മറ്റേ അഡ്രസ്സിലോട്ട് ഇനിയും ഫുഡ് വേണ്ട കാരണം ഞാൻ അവിടുന്ന് മാറിയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കറക്റ്റ് സ്പോട്ട് പറഞ്ഞാൽ നിങ്ങൾ വന്ന് ഫെഡറൽ ബാങ്കിൻ്റെ അകത്തോട്ട് ഒരു വളവുണ്ട് ആ വളവിൽ കൂടെ കയറി പോയി കഴിയുമ്പോൾ ഒരു കുഞ്ഞി പാലം കാണും ആ പാലം കയറി ഇറങ്ങി കഴിയുമ്പം പിന്നെയും ഒന്നുംകൂടെ വളവ് കാണും ആ ഇടതു സൈഡിലോട്ട് വളവ് കാണും ഇടത് സൈഡിലെ വളവ് വഴി നിങ്ങൾ നേരെ നടന്ന് പോയി കഴിയുമ്പോൾ ഒരു റിവറ് കാണും ഒരു അരുവി കാണും അത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ ഹൗസ് ബോട്ട് ഒക്കെ ഇട്ടേക്കുന്നത് കാണും ഹൗസ് ബോട്ട് ഇട്ടേക്കുന്നത് കാണ് കഴിയുമ്പോൾ കുറച്ചുംകൂടെ നേരെ വരണം നിങ്ങൾക്കൊന്നും തോന്നരുത് കുറച്ച് ഉൾവലിഞ്ഞൊരു സ്ഥലമാണ് അകത്തേക്ക് കയറി വരിക കയറി വന്ന് കഴിയുമ്പം ഒരു കുഞ്ഞി പാലം കാണും പാലം കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ വീടാണ് എന്റേത് കുറച്ച് ഇടുങ്ങിയ സ്ഥലമാണ് എന്നാലും ദയവു ചെയ്ത് നിങ്ങൾ എനിക്ക് കൊണ്ട് തരണം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു